ഹലോ

ആ ഞാൻ എൽസമ്മയാണ് എൻ്റെ പപ്പയെ ഒന്ന് അവിടെ നിർത്താൻ വേണ്ടി ആയിരുന്നു അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയായിരുന്നു അവർക്ക് അവിടെ വന്നാൽ കംഫർട്ടബിളായിരിക്കോ പിന്നെ പുള്ളിക്കങ്ങനെ ഒരു നീഡ് അങ്ങനെയില്ല ഫു ഫുഡും ഫ്രണ്ട്ഷിപ്പും ഒക്കെ ആയിട്ട് പിന്നെ എന്തേലും അസുഖോക്കെ വരുവാണെങ്കിൽ പെട്ടെന്നൊരു കെയർ കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുക്കുകേം പിന്നെ ഡോക്ടറിൻ്റെ സപ്പോർട്ട് ഉടനെ ഉണ്ടാവേം അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി അറിയാൻ വേണ്ടി ആയിരുന്നു പുള്ളി ഇച്ചിരി ഫ്രൺ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ആളാണ് അപ്പം എപ്പോഴും ഒരു കമ്പനി ആയിട്ട് ഇരിക്കൂല്ലോ എന്നൂടെ വിചാരിച്ചിട്ടൂടാണ് അവിടെ നിർത്താവെന്ന് വിചാരിച്ചത് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് നീഡ് ബേയ്സ് മതിയെന്ന് തോന്നുന്നു നീഡ് ബേയ്സ് ആ ആ പപ്പ തന്നെ കാ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യും കുറച്ചൊക്കെ എല്ലാം ചെയ്യാനുള്ള ഏബിളൊക്കെയാണ് പിന്നെ ഒറ്റയ്ക്ക് നിർത്തണ്ടല്ലോന്ന് വിചാരിച്ചിട്ടാണ് അവിടെ നിർത്താം എന്ന് വിചാരിച്ചത് അപ്പോൾ അവിടെ ഫ്രണ്ട്ഷിപ്പൊക്കെ ആവൂലോ പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വരുവാണെങ്കിൽ എന്തേലും വയ്യായ്ക വരുവാണെങ്കിൽ പെട്ടന്ന് നിങ്ങൾ അസിസ്റ്റ ചെയ്തോണം എന്നിട്ട് ഞങ്ങളെ ഇൻഫോം ചെയ്യണം ഞങ്ങൾ സ്ഥലത്ത് ഇല്ലാത്തോണ്ടെ ഓക്കേ ഞങ്ങൾ കൊ ഞങ്ങളിപ്പം ഞങ്ങടടുത്ത് പപ്പ നിൽക്കുമ്പോൾ ചെയ്യുന്ന പോലുള്ള എല്ലാ കെയറുകളും നിങ്ങളും ചെയ്തോളുവല്ലേ അല്ലേ

ഓക്കേ ഓക്കേ ഓക്കേ